നമ്മുടെ നാട്ടിലിപ്പോൾ അത്യാവശ്യം ചെറിയ ചെറിയ ഈ പ്രശ്നങ്ങളൊന്നും അധികം ആരും ന്യൂസ് റിപ്പോർട്ട് ചെയ്യാറില്ല അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടിപ്പോൾ അതൊരു ഹൈലൈറ്റ് ആയിട്ട് നിക്കണ ഒരു വിഷയം ആണെങ്കിൽ മാത്രമേ ന്യൂസിലൊക്കെ വരുന്നുള്ളു ബാക്കിയുള്ള ചെറിയ ചെറിയ വിഷയങ്ങളൊന്നും അങ്ങനെ ന്യൂസില് വരുന്നില്ല എല്ലാവരും എല്ലാ ചാനലുകാരും ആ ഒരു ന്യൂസ് ഏറ്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ മാത്രമേ അത് എല്ലാവിടേയും എല്ലാ ചാനലുകളിലൊക്കെ വരുന്നുള്ളൂ അല്ലാതെ ബാക്കിയുള്ളതൊക്കെ ചിലപ്പോൾ ഒരു ലോക്കൽ ചാനലുകളോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഒരു സൈഡിലോ അല്ലെങ്കിൽ ഹെഡ്ലൈനായിട്ടോ മാത്രം ജസ്റ്റൊരു ഒരു അടിയിൽക്കൂടേ എഴുതുന്നൊരു ഹെഡ് ലൈൻ പോലെ അങ്ങനെ ആയിപ്പോകുന്ന ചില ന്യൂസുകളുണ്ട് അപ്പോൾ എല്ലാ ന്യൂസുകൾക്കും അവർ വേണ്ടത്ര പ്രാധാന്യം നൽകി കൽപ്പിക്കുന്നില്ല അതായത് അവർക്ക് അതൊരു അന്നത്തെ ഒരു മെയിൻ വിഷയമായിട്ട് മെയിൻ ടോപ്പിക്കായി മാറുന്ന ന്യൂസുകൾ മാത്രേമേ അവർ എടുക്കൂ ന്യൂസ് ചാനലുകാർ ചാനലുകാർ എടുക്കുന്നുള്ളൂ